അതെ പറഞ്ഞോളൂ ആ ഓക്കെ മാഡം ഇപ്പൊ കേരളത്തിൽ ഓൾമോസ്റ്റ് ഒരുപാട് പ്ളേസുകളുണ്ട് മാഡം ഇപ്പോൾ മാഡം എങ്ങനത്തെയാണ് ട്രക്കിങ്ങിന് ആ ഓക്കെ ഓക്കെ നമുക്കിപ്പോൾ വയനാട് അങ്ങനെയുള്ള സ്ഥലത്തേക്കൊക്കെ പോകുന്നതായിരിക്കും മാഡത്തിന് ബെറ്റർ ആയിട്ട് തോന്നുന്നത് വയനാട് പിന്നെ നമുക്ക് കോഴിക്കോട് അങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെയാണ് കൂടുതൽ കാണാൻ പറ്റിയത് പിന്നെ തൃശൂരൊക്കെ പോയി കഴിഞ്ഞാൽ അമ്പലം പിന്നെ ഗുരുവായൂർ അമ്പലം അങ്ങനെ ഉള്ള അമ്പലങ്ങളും കാര്യങ്ങളൊക്കെയുണ്ട് അത് വേണമെങ്കിൽ ഞങ്ങൾ അറേഞ്ച് ചെയ്ത് തരാം മാഡം പോകുന്നയിടത്ത് നമുക്ക് വേണമെങ്കിൽ അത് ചെയ്യാൻ പറ്റും അറേഞ്ച് ചെയ്യാൻ പറ്റും ആ ഓക്കെ നാല് പേരാണോ ആ ഓക്കെ

ഫുഡ്ഡ് വണ്ടി നമുക്ക് അറേഞ്ച് ചെയ്യാം നാല് പേരല്ലേ ഉള്ളൂ സെവൻ സീറ്റർ വണ്ടി വേണോ ആ ഓക്കെ അത് നമുക്ക് അറേഞ്ച് ചെയ്യാം നമുക്കൊരു രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയ്ക്കാണ് പെർ ഡേ വരിക വണ്ടികൾക്ക് അതൊക്കെ നമ്മൾ ഹോട്ടൽ കാര്യം അവരോട് വിളിച്ച് നോക്കണ്ട വരും ഓ ചെയ്ത് തരാം മാഡം മാഡത്തിന് ഫുഡ്ഡ് എല്ലാം അക്കമഡേഷൻ്റെ അവിടെ തന്നെ വേ പറയണോ ആ ഓക്കെ